ഞങ്ങളുടെ അമ്പലത്തിൽ വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പരമ്പരാഗത ഉത്സവങ്ങളും ഉണ്ടാവും ഉണ്ട് അതിൽ പ്രധാനമായിട്ടും ഞങ്ങളുടെ ഇവിടത്തെ അമ്പലത്തിൽ പ്രധാനമായിട്ടുള്ള പരമ്പരാഗത ഉത്സവങ്ങളിലൊന്നാണ് മൂടിയേറ്റ് എന്ന് പറയുന്ന ഒരു കലാരൂപം കലാരൂപം ഈ മൂടിയേറ്റ് എല്ലാ അമ്പലങ്ങളിലും നടത്തപ്പെടുന്നില്ല ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുള്ള ചില അമ്പലങ്ങളിൽ മാത്രമാണ് മൂടിയേറ്റ് ആഘോഷിക്കുന്നത് ഇത് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു ഉത്സവമായിട്ടാണ് കൊണ്ടാടുന്നത് ഇത് രാത്രി കാലങ്ങളിലാണ് നടത്തപ്പെടുന്നത് ഇതിൽ പറം ഭഗവതിയുടെ ഒരു ആരാധന രൂപത്തിൻ്റെ ഭാഗമാണ് മൂടിയേറ്റ് ഇതിൽ സംബന്ധിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ ഒരു വിദേശീന്നോ സ്വദേശീന്നോ ഒന്നൊരു വേർത്തിരിവില്ലാതെ നമ്മുടെ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഇത് ആസ്വദിക്കാനും അതുപോലെ തന്നെ ഇതിൽ സംബന്ധിക്കുവാനുമുള്ള അനുവാദം നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനെ ഒരു തരത്തിലുമുള്ള വേർത്തിരിവും ഒരു ഈ ഉത്സവത്തിന് നമ്മൾ ആരും കാണിക്കാറില്ല എല്ലാവർക്കും ഒരുപോലെ പങ്കെടുക്കാനും അതിൽ സംബന്ധിക്കാനുമുള്ള എല്ലാ തരത്തിലുമുള്ള അനുവാദങ്ങളും ഉണ്ട്